പാസഞ്ചർ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലായിടത്തും പോകുന്നത് ബസ്സിൽ തന്നെയാണ് ബസ്സിലെ യാത്ര നല്ല യാത്രയാണ് പ്രൈവറ്റ് ബസ്സുണ്ട് മറ്റ് ബസ്സുകളൊക്കെയുണ്ട് ആ ബസ്സിലെ ഡ്രൈവറ് ഡ്രൈവറിനിരിക്കാന് സീറ്റ് കണ്ടക്ടർ സീറ്റുണ്ട് ജനങ്ങൾക്കിരിക്കാനും സീറ്റുണ്ട് അത്പോലെ അനേകം ആളുകള് അതില് നിന്ന് യാത്ര ചെയ്യ്ന്നവരുണ്ട് യാത്ര ബസ്സിലെ യാത്ര തീർച്ചയായും നല്ല യാത്ര തന്നെയാണ് ഞങ്ങള് ദുരെ യാത്രയിലൊക്കെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകാറുണ്ട് അതിലെ സീറ്റില് കിടന്ന് പോയി കിടന്ന്പോകുന്ന ബസ് സീറ്റ് പിന്നെ മുകളിൽ ബെർത്തുള്ള ബസ്സ്കള് അങ്ങനെ പല ബെസ്സ്കളി ലും ഞങ്ങള് യാത്രചെയ്തിട്ടുണ്ട് അത്പോലെ തന്നെ പിന്നെ ഡീസൽ അല്ലാ വിൻഡോകള് സീറ്റ്കള് എല്ലാം ഉള്ള ബസ്സിലാണ് ഞങ്ങള് യാത്ര ചെയ്തിട്ടൊക്കെയുള്ളത് ബസ്സിനെ സംബന്ധിച്ച് പറഞ്ഞുകഴിഞ്ഞാല് സുഖകരമായ യാത്ര തന്നെയാണ് ബസ്സില് നല്ല രീതിയിൽ ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങളില് ബസ്സില് ദൂരെയാത്രകളിലൊക്കെയാണെങ്കിലും ഞങ്ങള് ബസ്സിൽ സഞ്ചരിക്കാറുണ്ട് ആ യാത്ര ഞങ്ങൾക്ക് നമുക്ക് നല്ല ഒരു സന്തോഷകരമായ യാത്ര തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാത്രയില് പിന്നെ പിന്നെ പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ്സിലും ഞങ്ങള് സഞ്ചരിക്കാറുണ്ട് ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ കൂട്തലും പ്രൈവറ്റ് ബസ്സിലാണ് സഞ്ചരിക്കുന്നത് പ്രൈവറ്റ് ബസ്സ് ചിലയിടങ്ങളിൽ നല്ല രീതിയിലുണ്ട് അതിൽ ഞങ്ങള് യാത്ര ചെയ്യുന്നു അത്പോലെ തന്നെ ബസ്സ് ഞങ്ങളിവിടുന്ന് ഞങ്ങൾ വള്ളം കയറി അക്കരെ ഇറങ്ങി ഞങ്ങളുടെ നാട്ടിൽ വള്ളം കയറി അക്കരെ ഇറങ്ങണം അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങള് ബസ്സിലാണ് പോകുന്നത് എവിടെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ബസ്സിൽ മാത്രമേ പോകാൻ പറ്റൂളു ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നതില് യാതൊരു മടിയില്ല ബസ്സില് സന്തോഷകരമായാണ് ഞങ്ങൾ ആ ബെസ്സിൽ യാത്ര ചെയ്യുന്നത് പിന്നെ ബസ്സിൽ കയറുമ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ കയറുന്നു രണ്ട് ബെല്ലടിക്കുമ്പോൾ ബസ്സ് വിടുന്നു അങ്ങനെ സുരക്ഷിതമായി ആ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും സുരക്ഷിതമായി ബസ്സിൽ യാത്രക്കാരെ കൊണ്ട് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നു അങ്ങനെ പല രീതിയിലും നല്ല യാത്രയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സന്തോഷകരമായിട്ടാണ് തോന്നുന്നത് പിന്നെ ബസ്സിനെ സംബന്ധിച്ച് പറഞ്ഞുകഴിഞ്ഞാല് എന്തുവാണ് നല്ല നല്ല സുഖകരമായ യാത്രയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് യാത്രയില് ഞങ്ങള് ആര് എവിടെപ്പോയാലും പോകും കൂടുതലും ഞങ്ങള് ബസ്സിലാണ് സഞ്ചരിക്കുന്നത് ബസ്സില് ഞങ്ങൾക്ക് പോകാൻ സന്തോഷമാണ് കാരണം നല്ല ഒരു യാത്രയായിട്ട് നമുക്ക് തോന്നാറുണ്ട് അത് ഞങ്ങൾക്ക് നമ്മള് വലിയ ബസ്സ്കളിലും ഒക്കെ നമ്മള് ദുരെ യാത്ര പോകുമ്പഴത്തേക്കും വലിയ ബസ്സ് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ പോകുമ്പോൾ നമുക്കൊത്തിരി സന്തോഷം തോന്നാറുണ്ട് നല്ല സ്ഥലങ്ങളിൽ നല്ല കാഴ്ച്ചയൊക്കെ കണ്ട് പോകാനും ആസ്വദിച്ച് പോകുവാനും ഒക്കെ നമുക്ക് ബസ് യാത്ര ഉപയോഗപ്പെടാറുണ്ട് നല്ല സന്തോഷം തോന്നും ആ യാത്രയില് കാരണം നല്ല കാഴ്ച്ചകള് കാണാനും നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വധിച്ചുകൊണ്ട് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാനുവൊക്കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ബസ് യാത്ര നല്ല സുന്ദരമായിത്തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്